ഗൂഗിൾ മാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പെന്ന് പറയുന്നത് വളരെ ഒരു ഒരു എന്താണ് നമുക്ക് ഒരു സഹായകപരമായി സഹായമില്ലാത്ത ഒരു ഒരു കാര്യമാണ് ഈ ഗൂഗിൾ മാപ്പെന്ന് പറയുന്നത് നമ്മൾ ഒരു ഗൂഗിൾ മാപ്പിൽ നമ്മൾ മാപ്പ് ചോദിക്കയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള രീതിയിലള്ള അവർ മാപ്പ് തരുന്നത് ഏതെങ്കിലും ഗട്ടറോ നാരോ റൂട്ട് വരെ പറഞ്ഞു തരും പല പണ്ട് ഇത് കണക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പം ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സഹായം വേണ്ടി വന്നു പക്ഷേ ഗൂഗിൾ മാപ്പ് വളരെ നല്ല രീതിയിൽ ഞങ്ങളെ ചതച്ച ഒരു കാര്യമാണ് അതായത് നമുക്ക് എന്നാൽ പോകേണ്ടത് ലെഫ്റ്റിലോട്ട് പോകേണ്ടത് റൈറ്റിലോട്ട് ആക്കി അത് ഡൈവേർട്ട് ചെയ്ത് വന്നു വേറെ ഒരു വഴിക്കേക്ക് ആക്കി ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ തന്നെ പറ്റിയില്ല അത് അന്നത്തെ ഒരു നല്ല ഒരു ഫംഗ്ഷൻ ആയിരുന്നു അങ്ങോട്ട് പോവാനോ ഒന്നും പറ്റിയില്ല അതുപോലെ തന്നെ ഈ ഗൂഗിൾ മാപ്പ് പല ഇപ്പോഴത്തെ ഗൂഗിൾ മാപ്പ് വഴി എത്ര എത്ര അപകടങ്ങളാണ് നമ്മൾക്ക് നമ്മൾ കണ്ടു വരുന്നത് അല്ലെങ്കിൽ തന്നെ ഇതിൻ്റേത് ആയിട്ടുള്ള ഒരു നമ്മൾക്ക് സാമൂഹ്യ മാധ്യമമെന്ന് പറയുന്ന നമ്മൾക്ക് അത് അത് പ്രായോഗികപരമായിട്ടുള്ള കാര്യമല്ല ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പം ചിലർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവത്തില്ല എന്നു പറയുന്നതു പോലെയാണ് ഈ സാമൂഹ്യമാധ്യമമെന്ന് പറയുന്നത് അല്ല ഗൂഗിൾ ഗൂഗിൾ മാപ്പെന്ന് പറയുന്നത് നമുക്ക് അത് ഗൂഗിൾ മാപ്പെന്ന് പറയുന്നത് നമുക്ക് അത് ഒരു എന്താണ് പറയുക ഗൂഗിൾ മാപ്പെന്ന് പറയുന്നത് നമ്മൾക്ക് അത് ഒട്ടും അക്സപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് അതായത് ഗൂഗിൾ മാപ്പെന്ന് പറയുന്ന അത് ആ ഒരു എന്നാൽ ആ ഒരു ആപ്പ് എന്നുവച്ചാൽ അത് എന്തിനാണെന്ന് ചില സമയത്ത് ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം നമ്മൾക്ക് അതൊരു കൃത്യസമയത്ത് അത് അത് കൃത്യ വഴി പറഞ്ഞു തരാതെ കൃത്യമായിട്ടുള്ള എങ്ങനെ പോകണം എന്നു പറഞ്ഞു തരാതെ നമ്മളെ വളരെ അധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ഗൂഗിൾ മാപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ആപ്പ് തന്നെയാണ് ഈ ഗൂഗിൾ മാപ്പ് അത് ഒരാൾക്ക് എന്നല്ല ഇപ്പം എനിക്ക് എന്നല്ല എല്ലാവർക്കും ഇതേ ഇതേ കാര്യം തന്നെ എനിക്ക് എല്ലാ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാവർക്കും ഇതേ കാര്യങ്ങൾ തന്നാ എല്ലാവർക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഗൂഗിൾ മാപ്പെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രയോഗികമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾക്ക് അത് നല്ല രീതിയിൽ നമ്മൾക്ക് അത് പ്രയോജിത നല്ല രീതിയിൽ അത് പ്രായോഗികമായിട്ട് നമ്മൾക്ക് അത് എടുക്കാൻ പറ്റത്തില്ല അത് അവർ അത് അവരെ നല്ല രീതിയിൽ പ്രയോജിക്കപ്പെടുത്താതെയും അത് നല്ല രീതിയിൽ തന്നെ അതിനെ പ്രായോഗികമായിട്ട് നമ്മൾക്ക് അത് പ്രായോഗികമായിട്ട് അതിനെ ഉൾക്കൊള്ളുകയും അതിനെ സാമൂഹത്തിൽ നമ്മൾക്ക് നമുക്ക് നല്ല വഴി അല്ലാതെ ചീത്ത വഴിയിലൂടെ തന്നെയാണ് നമ്മളെ അത് സഞ്ചാരി അത് പല നമ്മൾ ഇപ്പോൾ ന്യൂസിൽ ആയിക്കോട്ടെ നമ്മൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് വഴി പോയി ആളുകൾ വഴിതെറ്റി പുഴയിൽ വീണു അവർക്ക് അവിടെ റോഡ് തീർന്നു പോയി അങ്ങനെ അപകടമുണ്ടായി ആൾക്കാർ മരിച്ചു അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അത് ഈ ഗൂഗിൾ മാപ്പെന്ന് പറയുന്നത് അത് ആ ഒരു ആപ്പിൻ്റെ എന്ത് കാര്യമുണ്ട് നമ്മൾക്ക് ഇപ്പം പണ്ടത്തെ സമൂഹത്തിലെ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആപ്പെന്ന് പറയുന്നത് കാര്യമില്ല നമ്മൾ ആൾക്കാരുടെ അടുത്ത് വഴി ചോദിച്ചു ചോദിച്ച് ചോദിച്ചാണ് നമ്മൾ ഓരോ വഴിയും പോകുന്നത് പക്ഷേ ഇന്നത്തെ ആൾക്കാർക്ക് എന്തെന്ന് വച്ചാൽ ഇപ്പം ഒരു ഫോൺ ഉണ്ട് അപ്പം ഫോണിലൂടെ അത് എങ്ങനെയാാണ് സ്ഥലത്ത് ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാം എന്നൊരു ചിന്തയെ ഉള്ളു മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ അത് നാണക്കേടാവുമോ അതെങ്ങനെ ചോദിക്കുമെന്ന എന്ന രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഗൂഗിൾ മാപ്പെന്ന് പറയുന്നത് നല്ല കാര്യം എന്ന് അതൊരു പ്രയോഗമില്ലാത്ത കാര്യമാണ് ചിലവർക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ എൻ്റെ എൻ്റെ ഒരു അനുഭവം പറയാമെന്ന് വച്ചാൽ ഇതുപോലെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകണമായിരുന്നു ഞങ്ങൾക്ക് അത് നമുക്ക് അങ്ങനെ പോകണമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ പോകുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ നമ്മൾ സഹായം തേടേണ്ടി വന്നു പക്ഷേ ഗൂഗിൾ മാപ്പ് നല്ല രീതിയിൽ തന്നെ ചതിച്ചെന്ന് തന്നെ പറയാം എന്നു വച്ചാൽ പോകേണ്ട വഴി ഡൈവേർട്ട് ചെയ്യേണ്ടത് റൈറ്റിലോട്ട് പോകേണ്ടത് ലെഫ്റ്റിലോട്ട് ആക്കി നാരോ റൂട്ട് ഉണ്ടെന്നും പറഞ്ഞതുകൊണ്ട് അതിനെ വേറെ ഒരു രീതിയിലേക്കാണ് ആക്കി തന്നത് ഇത് വളരെ വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതുകൊണ്ട് ആർക്കും ആർക്കും എന്നല്ല ഇപ്പം എനിക്ക് പ്രയോജനമില്ല മറ്റുള്ളവർക്ക് പ്രയോജനം പ്രയോജനമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഗൂഗിൾ മാപ്പെന്ന് പറയുന്ന ഒരു ആപ്പ് വെറും വേസ്റ്റ് ആപ്പ് തന്നെയാണ് അത് എന്താണ് ഒരു പ്രയോഗിച്ചു പ്രയോഗമായിട്ടുണ്ട് അത് പ്രയോജനവുമാണ് അല്ലെങ്കിൽ പ്രയോജനമല്ലാതെ ഉണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത് ഇത് നമ്മൾ ഗൂഗിൾ മാപ്പെന്ന് പറയുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ പലവട്ടം ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്